പ്രകൃതി നീന്തൽക്കുളത്തിൽ നമുക്ക് കൂടുതലായിട്ട് നീന്തിപ്പഠിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതേ സമയം തടാകങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണം നീന്തി പോകാനും അവിടെ നിന്നും വ്യായാമം ചെയ്യുക ചെയ്യുന്നതിനും ഏറ്റോം പ്രായോഗ്യവുമായ ഒരു സ്ഥലമാണ് നീന്താൻ വേണ്ടി തടാകങ്ങളുണ്ടെങ്കിൽ അതാണ് ആരോഗ്യകരമായ ഒരു നീന്തൽ സംവിധാനം അവിടെ ഒരുക്കുന്നതിന് എന്നാൽ അപകടകരമായ സംവിധാനങ്ങളും അവിടെയുണ്ട് വളരെ താഴ്ച്ചയുള്ള സ്ഥലങ്ങളുമുണ്ട് വളരെ അപകടകരമായ മായ സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് പോയില്ലായെങ്കിൽ അവിടെ നമുക്ക് കൈപിടിച്ച് നിൽക്കാൻ പറ്റുകേല വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു തടാക ഒരു നദി ഡാമിന്റെ ഏരിയ അതാണ് വളരെ ദീർഘദൂരം നീണ്ടുനിൽക്കുന്ന ഒരു തടാകങ്ങളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്